പല കായികങ്ങളും പല രീതിയിലും മനുഷ്യൻ്റെ ജീവിത ശൈലിയെത്തന്നെ ബാധിക്കുന്നതായ ഒര് കാര്യംതന്നെയാണ് അത് പലരും പല ജാ യുവാക്കളാണേലും കുഞ്ഞുങ്ങളാണേലും പലരും അവരുടെ പരിമിതികളെ മനസ്സിലാക്കിയാണ് പലരും കായിക വിനോദങ്ങളിലേർപ്പെടുന്നത് ആ കായിക മത്സരങ്ങളെന്നാൽ എല്ലാവരും പരിമിതികളെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ മറിച്ച് കടന്ന്കൊണ്ടാണ് കായിക മത്സരങ്ങൾ കടന്ന് വരുന്നത് അവിടെ പരിമിതികൾക്കപ്പുറം അവർക്കൊരു പുതിയൊരു കഴിവോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് അവരുടെ ജീവിത്തിന് പുതിയൊരു നേട്ടം തന്നെ കായിക മത്സരങ്ങൾക്ക് മേടിച്ച് കൊട്ക്കാന്തന്നൊരു വലിയൊരു ഘടകമായി മാറിയിരിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിലാണെങ്കിൽ മത്സരകളികളെല്ലാം അവരുടെ ഓരോരുത്തരുടെ ജീവിത്തില് വലിയ വലിയ പ്രാധാന്യം അർ അർഹിക്കുന്നോര് വസ്തുതതന്നെയാണ് അവര് വലിയ വലിയ കാര്യങ്ങള്തന്നെ അവർക്ക് കായിക മത്സരങ്ങളിലൂടെ ഉന്നതോപാധികളും മറ്റുവൊക്കെ കൈവരിക്കാൻ കായിക മത്സരങ്ങളിലൂടെ കഴിയും